ഇപ്പോൾ പി ടി ഉഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ തന്നെ മെയിൻ നല്ല ആയിട്ട് ഓടുന്ന ഒരു വ്യക്തിയാണ് പി ടി ഉഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പുള്ളിക്കാരിന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ആണ് അപ്പോൾ നമുക്ക് കോഴിക്കോട് ചെന്നിട്ട് പി ടി ഉഷ നഗർ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരിന്റെ വരെ റോഡ് കാര്യങ്ങൾ ഒക്കെ കോഴിക്കോട് ഉണ്ട് അപ്പോൾ അതാ അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ പി ടി ഉഷ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പി ടി ഉഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ അതായത് കായിക വിനോദത്തിന്റെ ഒരു ചുമതല ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ട് പി ടി ഉഷ ഇന്ത്യയില് ഇന്ത്യയില് അപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് പി ടി ഉഷ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഇടയിൽ കേരളത്തിന് അഭിമാനമായിട്ടുള്ള ഒരു വനിതയാണ് പി ടി ഉഷ ഇപ്പോൾ വിരമിച്ചെങ്കിലും പണ്ടത്തെ ഒരു താരം തന്നെ ആയിരുന്നു കാരണം എല്ലാ ഓട്ടങ്ങളിലും ഇപ്പോൾ സ്റ്റേറ്റ് മുതൽ അതായത് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ വരെ ഓട്ടത്തിൽ നല്ല രീതിയിൽ പ്രൈസ് കാര്യങ്ങൾ ഒക്കെ അവർ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് പി ടി ഉഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പി ടി ഉഷ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്